സാധാരണയായി ഞങ്ങൾ ഞാൻ അത്താഴത്തിനും ഉച്ചക്കുമൊക്കെ ഞങ്ങൾ ചോറും കറികളുമൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളെ വല്ലപ്പോഴുമൊക്കെ ഞങ്ങൾ ചപ്പാത്തിയും മുട്ടക്കറിയൊ അങ്ങനെ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലുമൊരു ഫുഡ്ഡ് ഞങ്ങൾ രാത്രി അത്താഴത്തിനു മാത്രം നൈറ്റ് രാത്രി കഴിക്കാൻ മാത്രമായി ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളു കൂടുതലും ഞങ്ങൾക്കു ചോറ നൈറ്റിലും രാത്രിയിലും ഉച്ചക്കുമൊക്കെ ഞങ്ങൾക്കു കഴിക്കാൻ ചോറു തന്നെയാണ് താത്പര്യം ചോറ് ഉച്ചക്കൊക്കെ ചോറ് ചൂടു ചോറും കറി ഒക്കെ കൂട്ടിക്കഴിയ്ക്കാനാണ് കൂടുതലും താത്പര്യം വൈകുന്നേരമാകുമ്പോഴത്തേന് കൂടുതലും ഞങ്ങൾ രാത്രിയിലേയ്ക്ക് കറി വേറെ എന്തെങ്കിലും വെക്കും ഉച്ചക്കത്തെ കറികളൊന്നും ഞങ്ങളങ്ങനെ യൂസ് ചെയ്യാറില്ല ഞങ്ങൾ രാത്രി വേറെ കറികളാ യൂസ് ചെയ്യാറുള്ളെ ഉച്ചക്കത്തെ കറി ഉച്ചക്കും രാവിലത്തേക്കു വല്ല സാമ്പാറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ രാവിലെ ഉച്ചക്കുമെടുക്കും വൈകുന്നേരമങ്ങനെ എടുക്കാറില്ല വൈകുന്നേരം അപ്പത്തേനും ഞങ്ങൾ വേറെന്തെങ്കിലും മുട്ട ഓംപ്ലേറ്റൊ മോരുകറി അങ്ങനെ ചെറിയ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലുമുണ്ടാക്കും പിന്നെ ത തൈര് തൈരു വറ്റൽ മുളക് ഞെരടിയൊ അങ്ങനെയൊക്കെ ഞങ്ങൾ കഴിക്കും അതൊക്കെ ഞങ്ങൾക്കേറ്റവും എനിക്കും ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എനിക്കേറ്റവും കൂടുതലിഷ്ടപ്പെട്ട ഫുഡ്ഡ് ഉച്ചക്കൊക്കെ എനിക്കു കഴിക്കാൻ ഏറ്റവും കൂടുതലെനിക്ക് ചോറും എന്തെലുമൊരു ഒഴിച്ചു കറിയൊ മെഴുക്കു പുരട്ടിയൊ അല്ല മെഴുക്കു പുരട്ടി ഐ മീൻ തോരൻ എന്തോ അങ്ങനെ വല്ലതും കഴിക്കാനാണ് എനിക്കിഷ്ടം ക്യും അല്ലാതെനിക്ക് വേറെ ഫുഡ്സൊന്നും കഴിക്കാനൊക്കെനിക്ക് താത്പര്യമില്ല രാത്രികളിൽ മാ അങ്ങനെ ഇപ്പം ഒത്തിരി ഫുഡ്ഡൊന്നും ഞാൻ രാത്രിയിലൊ ഉച്ചക്കൊന്നും കഴിക്കാറില്ലാത്തതു കൊണ്ട് തന്നെ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും രാത്രി ഞങ്ങൾ വെക്കും ഉച്ചക്കന്നേരം ഏറെ കഴിച്ചാൽ ഞങ്ങൾ രാത്രി ലൈറ്റായിട്ടെന്തെങ്കിലും ഉള്ള ചപ്പാത്തിയും മുട്ടക്കറി ഒക്കെ വെക്കും വല്ലപ്പോഴും എന്നുമൊന്നും റൈസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഷുഗർ ഷുഗറിന്റെ ഒക്കെ ഉള്ളതു കൊണ്ട് അങ്ങനങ്ങനെ യൂസ് ചെയ്യാറില്ല ഈ ചപ്പാത്തി ലൈറ്റായിട്ട് ഞങ്ങൾക്ക് എനിക്കേറ്റവും കൂടുതലിഷ്ടം ചപ്പാത്തിയും രാത്രി കഴിക്കാനാണ് ഉച്ചക്ക് വും ചോറും രാത്രി ചോറൊക്കെ കഴിക്കാമെങ്കിലും എനിക്ക് ഉച്ചക്കൊക്കെ കഴിക്കുന്നതാണ് കൂടുതൽ താത്പര്യം